എസ് എച്ച് സ്കൂളിലെ പ്രിൻസിപ്പൽ അല്ലെ ആ അതെ ഞാനെ വർഗീസ് തോമസിൻ്റെ അമ്മ ആയിരുന്നേ എട്ടാം ക്ലാസിൽ പഠിക്കുന്ന വർഗീസ് തോമസിൻ്റെ അമ്മ ആയിരുന്നെ അതെ ഞങ്ങൾക്ക് അടുത്ത ആഴ്ച മൂന്ന് നാല് ദിവസത്തെ ലീവ് വേണമായിരുന്നു മ്മ് നാല് നാല് ദിവസത്തെ ലീവ് വേണമായിരുന്നു ഞങ്ങള് ഫാമിലി ടൂറ് പോകുവായിരുന്നേ അപ്പം ഞങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് ലീവ് തരാവോന്ന് ചോദിയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചിരുന്നേ

മ്മ് പോകേണ്ടത് അടുത്ത ആഴ്ചയിലാണ് അടുത്ത ആഴ്ചയിൽ ഏതെങ്കിലും ദിവസം നാല് ദിവസം അടുത്താഴ്ച നാല് ദിവസം ആ ഇനിയും സ്കൂളിലെ ടീച്ചേഴ്സിനോട് വല്ലതും ചോദിക്കണോ ക്ളാസ് ടീച്ചർമാരോടോ

ഉം ഞങ്ങൾ പ്രിൻസിപ്പളിനെ പ്രിൻസിപ്പളിനെ വന്ന് കാണണോ വേണ്ട അതോ അല്ല ക്ളാസ് ടീച്ചറിനോട് പറഞ്ഞോളാം അത് ഓക്കേ പിന്നെ ഞങ്ങള് പ്രിൻസിപ്പളിന് വല്ല ലെറ്റെറോ വല്ലതും തരുവോ വല്ലതും വേണോ മ്മ് മ്മ് പിന്നെ ഞങ്ങള് അല്ലെന്ന് ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് അപേക്ഷ തന്നുകൊള്ളാം അപ്പ്ളികേഷൻ തന്നുകൊള്ളാം കേട്ടോ ആ അത് കുഴപ്പമില്ല ആ വർഗീസ് തോമസിനെ എങ്ങനെ ഉണ്ട് സാറേ സാറിന് അറിയാവോ വർഗീസ് തോമസിനെ എങ്ങനെ ഉണ്ട് പഠിക്കാനൊക്കെ മിടുക്കനാണോ

ആ അവൻ വീട്ടിലും വലിയ കുഴപ്പമൊന്നും ഇല്ല പഠിക്കുന്നൊക്കെയുണ്ട് ഉണ്ട് കുഴപ്പം ഒന്നുമില്ല ഇങ്ങനൊക്കെ പോകുന്നു ആ വലിയ ഉഴപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാ പോകുന്നത് അത് സ്കൂളിലെങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് സാറിനോട് ചോദിച്ചത് ആ ആ ആ പറയാം പറയാം പറയാം ഫാമിലി ടൂർ കഴിഞ്ഞിട്ട് വന്ന് കഴിയുമ്പത്തേക്ക് പറയാം ആ പഠിപ്പിച്ചോളാം പഠിപ്പിച്ചോളാം അതിൻ്റെ ആ മിസ്സായി പോയ ഭാഗം അതിൻ്റെ എല്ലാം നമ്മള് ആരോടെങ്കിലും ചോദിച്ച് മനസിലാക്കിക്കോളാം പാഠ ഭാഗങ്ങളൊക്കെ മ്മ് മ്മ് ആ എന്നാൽ ശരി ഓക്കേ മ്മ് മ്മ്